നമസ്ക്കാരം ഞങ്ങളുടെ വീട്ടിലൊരു ഒരു കോഴിയുടെ ഒരു ഫാ ഒരൂ മുപ്പത് കോഴിയെ വളര്ത്തുന്നുണ്ട് അതിൽ ഞങ്ങൾ എന്റെ അച്ചായനും അമ്മയും ഞങ്ങൾ ഞാനുമാണത് നോക്കുന്നത് അതിന് ദിവസവും ആഹാരം കൊടുക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് പുറത്തു നിന്നും ആരെയും ഞങ്ങൾ അതിനു സഹായത്തിന് വെച്ചിട്ടില്ല പിന്നെ അതു ഞങ്ങൾ ക്ലീന് ആക്കുകയും ദിവസവും അതു നീറ്റ്നെസ്സ് ആയിട്ട് ക്ലീനാക്കി എന്തെങ്കിലും ഡെറ്റോൾ പോലെയുള്ള എന്തെങ്കിലും സൊലൂഷൻ തളിച്ച് ക്ലീനാക്കി വെയ്ക്കാറുണ്ട് പിന്നെ കോഴി ഇത്ര ദിവസം ആയികഴിയുമ്പം ഞങ്ങൾ ഒരു പത്തൊൻപത് ദിവസത്തേക്കാണടയിരിക്കാനായിട്ടു വെക്കുന്നത് അടയിരുന്ന് മുട്ട വിരിഞ്ഞതിനു ശേഷം ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും കുഞ്ഞുങ്ങള്ക്കു വേണ്ട പാ പിന്നെ മൻ മരുന്നും ഇന്ഞ്ചക്ഷനും എടുക്കുകയും ചെയ്യുന്നുണ്ട് അതു പോലെ തന്നെ ഞങ്ങൾ എല്ലാ ജീവികളോടും സ്നേഹത്തോടെയാണ് പരിപാലിക്കുന്നത് കോഴിക്കു കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പുല്ലുവര്ഗ്ഗത്തില് പെട്ടതും വൈറ്റമിന്സും പ്രോട്ടീനും അടങ്ങിയ ആഹാരങ്ങളും കൊടുക്കാറുണ്ട് പിന്നേ ഗോതമ്പ് അങ്ങനെയുള്ള ആഹാരങ്ങളും കൊടുത്താണ് ഞങ്ങൾ കോഴീനെ പരിപാലിക്കുന്നത് പിന്നെ ഞങ്ങളുടെ വീടും പരിസരവും ഞങ്ങൾ വൃത്തിയായി തന്നെയാണ് സ് നോക്കുന്നത് കോഴിയുടെ കൂടും ദി ദിവസവും ക്ലീനാക്കാറുണ്ട് പിന്നെ കോഴിക്കു വേണ്ട വാക്സീനേഷന് എടുക്കാറുണ്ട് രാത്രികളില് അതിന് ചൂടുകിട്ടാന് വേണ്ടി ലൈറ്റ് ഉപയോഗിക്കാറുണ്ട് ഇതു ഞങ്ങൾക്കു നല്ല രീതി തന്നെയാണ് വരുന്നേ ഞങ്ങൾക്കു മാനസികമായിട്ട് കോഴികളെ പരിപാ പരിപാലിക്കുമ്പോഴത്തേക്കും ഒത്തിരി സന്തോഷവും ഉ ഉല്ലാസപ്രദവുമായിട്ടാണ് തോന്നുന്നത് മാനസി മാനസികമായ ടെന്ഷന് ഉള്ളപ്പോഴും കോഴിയെ പരിപാലിക്കുമ്പോള് ഞങ്ങൾക്കു നല്ലൊരു മനസ്സിനൊരു സന്തോഷകരമായിട്ടാണ് തോന്നുന്നത് അതുപോലെ തന്നെ അച്ചായനാണ് ഈ കോഴികളെ വളര്ത്തണമെന്നുള്ളൊരാശയം ഞങ്ങള്ക്ക് തന്നത് അച്ചായന് അച്ചായനാന്നെ കോഴിയെയും പിന്നെ മൃഗങ്ങളോടും ഒരു സഹജീവികളോടും സ്നേഹമുള്ളൊരു ഇതായിരുന്നു അതുപോലെ തന്നെ ഞങ്ങള്ക്കും അതു പകര്ന്നു തന്നിരിക്കുകയാണ് അതുപോലെ തന്നെ കോഴിമുട്ട ഞങ്ങൾ ഒരു മുട്ടയ്ക്ക് അഞ്ചു രൂപ വെച്ചാണ് കൊടുക്കുന്നത് പിന്നെ കോഴി മുട്ടയിൽ നിന്നു ഞങ്ങൾ കേക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ കോഴി കോഴിമുട്ടയില് നിന്നും കിട്ടുന്ന ഒരു ലാഫത്തിലൊരു വിഹിതം ഞങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ കോഴിമുട്ട അതുപോലെ കോഴിയിറച്ചി സംസ്ക്കരണത്തിനും നല്ല രീതിയിൽ തന്നെയാണ് അതു സംസ്ക്കരിച്ചെടുക്കുന്നത് അതു ക്ലീന് ചെയ്ത് അതിന്റെ മാലിന്യങ്ങൾ ഞങ്ങൾ കുഴിച്ചിട്ട് കമ്പോസ്റ്റായിട്ടും മാലിന്യങ്ങൾ വേസ്റ്റ് കുഴിച്ചിട്ട് കമ്പോസ്റ്റായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ നല്ല രീതിയില് തന്നെയാണ് ഞങ്ങളുടെ പരിസരങ്ങൾ ശുചിയായിട്ടു നോക്കുന്നത് കോഴികൾ വളര്ന്ന് അതിൽ നിന്ന് ഒരു ഇരുപത്തൊന്ന് ദിവസാകുമ്പോൾ കോ കോഴിമുട്ട വിരിഞ്ഞു വിരിഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഞങ്ങളതിന് ഇതിന് മഞ്ഞളിന്റെ വെള്ളമൊക്കെ കൊടുക്കാറുണ്ട് മഞ്ഞളിന്റെ വെള്ളത്തിൻറ്റകത്ത് അരിയിട്ട് ആണ് കൊടുക്കുന്നത് അതിന് ഇമ്മ്യൂണിറ്റി പവർ കിട്ടാന് വേണ്ടിയിട്ടാണ് ഇതു കൊടുക്കുന്നത് അതുപോലെ തന്നെ കോ കോഴിക്കുഞ്ഞുങ്ങളുടെ എല്ലാ സ്റ്റേജിലും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ ശരിക്കും പരിപാലിച്ചാൽ മാത്രമേ നമുക്കത് നിലനിർത്തികൊണ്ട് പോകാൻ പറ്റുള്ളൂ പെട്ടെന്നെന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ അതു മരണത്തിനു കാരണമാകും അതുകൊണ്ടു ഞങ്ങളതിനെ ശരിക്കു പരിപാലിച്ചു തന്നെയാണ് കൊണ്ടു പോകുന്നത്